വ്യത്യസ്തതരങ്ങളായ പമ്പുകളിൽ നമ്മൾ പണ്ടുകാലങ്ങളിൽ ഉപയോഗിച്ചു വരുന്ന പമ്പുകളാണ് കൈപ്പമ്പുകൾ ഈ കൈപ്പമ്പുകൾ നമ്മുടെ സാധാരണ കിണറുകളിലോ അല്ലെ സ്മോൾ ബോറിലൊക്കെ ഉപയോഗിക്കലുണ്ട് ഈ കൈപ്പമ്പുകൾ നമ്മുടെ എന്താ സ്വമേധയാ പ്രവർത്തിക്കുന്ന പമ്പുകളാണ് വെള്ളം പുറത്തേക്ക് വരാൻ നമ്മുടെ മനുഷ്യശക്തിക്കും പിന്നെ മെക്കാനിക്കൽ പവറും രണ്ടും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് ജലസേചനത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന പമ്പാണ് കൈപ്പമ്പുകൾ വ്യാവസായികപരമായും സമുദ്രപരമായും പിന്നെ ജലസേചനത്തിന് വിനോദത്തിന് ഒക്കെ വിവിധ തരത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ കൈപ്പമ്പുകൾ ഉപയോഗിക്കാറുണ്ട് പ്രധാനമായും പിസ്റ്റൺ ഡയഫ്രം അങ്ങനെ രണ്ട് തരത്തിൽ ഉള്ള കൈപ്പമ്പുകൾ ആണ് ഉള്ളത് അതിൽ തന്നെ ഏറ്റവും കൂടുതലായി നമ്മൾ ഉപയോഗിക്കുന്നത് പിസ്റ്റൺ ടൈപ്പ് പവർ കൈപ്പമ്പുകൾ ആണ് അതായത് നമ്മൾ നമ്മുടെ മനുഷ്യൻ്റെ പവർ അതായത് ഹാൻഡ് പവർ നമ്മൾ യൂസ് ചെയ്യുന്നത് ആ പമ്പിൻ്റെ പുറകുവശത്ത് കാണുന്ന ഒരു നീളത്തിലുള്ള ഒരു റോഡ് ഉണ്ട് ആ റോഡ് നമ്മൾ താഴോട്ടും മുകളിലോട്ടും നമ്മൾ ചലിപ്പിക്കുന്നത് അനുസരിച്ച് ഭൂമിയുടെ ഉള്ളിൽ നിന്ന് എന്ത് ചെയ്യും വെള്ളം മുകളിലോട്ടേയ്ക്ക് അതായത് നമ്മുടെ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് തത്വം ഉപയോഗിച്ചിട്ട് നമ്മൾ വെള്ളം മുകളിലോട്ടേയ്ക്കു കയറും അങ്ങനെ ആ വെള്ളം കയറി കയറിയ മുകളിലോട്ടു കയറിയ വെള്ളം നമ്മൾ എന്ത് ചെയ്യും ഔട്ട്ലെറ്റിലൂടെ എന്ത് ചെയ്യും വെള്ളം പുറത്തേയ്ക്ക് വരിക അങ്ങനെയാണ് ചെയ്യുന്നത് അതായത് ഈ പിസ്റ്റൺ പിസ്റ്റൺ കൈപ്പമ്പുകളിൽ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്താ പ്രിൻസിപ്പൽ തത്വം ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് വെള്ളം പുറത്തോട്ടേയ്ക്കു വരുന്നത് മഴക്കാലമാണ് ഭൂഗർഭജലത്തിലെ ലഭ്യത എത്രയുണ്ടോ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യും ആ പമ്പിൽ നിന്ന് വെള്ളം വരും വേനൽ കാലങ്ങളിൽ അത് വറ്റി പോകാറും ഉണ്ട് ഇപ്പം കൈപ്പമ്പുകളിൽ തന്നെ നമ്മൾ പിസ്റ്റൻ്റെ മുകളിലെ സ്ട്രോക്ക് ഉണ്ടാകും ആ വാൽവ് തുറക്കുകയും അതിനുള്ളിലെ സെക്ഷൻ ഹെഡ്ഡിലേക്ക് വെള്ളം എത്തിക്കുകയും ചെയ്യുന്നു അങ്ങനെ ആ പിസ്റ്റണിൻ്റെ താഴെയുള്ള സ്റ്റോക്കിൻ്റെ വാൽവ് തുറക്കുകയും പിന്നെ പിസ്റ്റണിൻ്റെ മുകളിലൂടെ എന്ത് ചെയ്യും വെള്ളം ഒഴുകാൻ അനുവദിക്കുകയും ചെയ്യും അങ്ങനെ ആ പിസ്റ്റണിൻ്റെ തുടർച്ചയായ മുകളിലേക്കുള്ള സ്ട്രോക്കിൽ വെള്ളം ഔട്ട്ലെറ്റിൽ നിന്ന് പുറത്തേയ്ക്ക് വരികയാണ് ചെയ്യുന്നത് നമ്മുടെ നാടുകളിലെ എന്താ മിക്ക സ്ഥലങ്ങളിലും മിക്ക ഓരോരോ പഞ്ചായത്തുകളിലായിട്ട് നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ഈ ഹാൻഡ് പമ്പുകൾ നിർമ്മിക്കാറുണ്ട് ഇപ്പോൾ നിർമ്മിക്കുന്നുണ്ട് അപ്പോൾ അതിൽ നിന്നുള്ള